ഞാന് ക്ലൈംബിംഗ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽപ്പോലും ഞാൻ കോളേജിൽ നിന്നും ചിക്ക്മംഗ്ളൂർ അതുപോലെ ഉഡുപ്പി വണ്ടർല ബാംഗ്ലൂർ അവിടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊൾ ഈ ചിക്കമംഗ്ലൂർ എന്ന് വെച്ചാൽ ഫുൾ ട്രെക്കിങ് ആണല്ലോ അപ്പൊൾ ഞങ്ങളുടെ വാഹനം അപ്പൊൾ ട്രക്കിങ്ങിനു പോകുന്ന വാഹനം ഒന്ന് സ്റ്റാക് ആയപ്പോൾ നമ്മള് ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പൊൾ ഒരു വലിയ അവിടെ ഇങ്ങനെ ചുരം പോലെ ഒക്കെ അല്ലെ ഒരു പ്രദേശങ്ങളൊക്കെ ചുരംപോലെ ആണ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു അപ്പോൾ ഒരു കുന്നിന്റെ മേലെ ആണ് അടുത്ത റോഡ് വരുന്നത് അപ്പൊൾ ഈ റോഡിലൂടെ അല്ലാതെ ഷോർട്ടാക്കി നമ്മള് കേറാൻ വേണ്ടിട്ട് ഒരു വലിയ കുന്നിൻ്റെ മുകളില് പകുതിക്കു കുന്നിൻ്റെ മുകള് ഈ ചെറിയ ചെറിയ ചെടികളും അതുപോലെ അതു അതൊക്കെ ഉള്ളൊരു കുന്നായിരുന്നു കൂടുതലും മണ്ണും പാറകല്ലുകളും അതൊക്കെ ആയിരുന്നു അപ്പൊ അതിലൂടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കൈപിടിച്ച് പിടിച്ചു പിടിച്ചു കേറീട്ടുണ്ടായിരുന്നു ഒരു അതൊരു നല്ല അനുഭവമായിരുന്നു അടിപൊളി ഒരു നല്ല സ്ഥലായിരുന്നു ആ ചിക്കമംഗ്ലൂർ എന്ന് വെച്ചാൽ ഫുൾ കൂടുതലും പച്ചപ്പൊന്നും ഇല്ലെങ്കിലും എങ്കിൽപോലും ട്രക്കിങ് ആയതു കൊണ്ട് ഈ വലിയ ജീപ്പിലൊക്കെ പോകുമ്പോ നല്ല ആ നല്ലൊരു അടിപൊളിയായിരുന്നു അതുപോലെ ഉഡുപ്പി പോകുമ്പോഴെക്കെ അവിടെ ആണെങ്കിലും അവിടെ പിന്നെ ഐലൻഡിലും ഒക്കെ ആണ് നമ്മള് പോയത് അവിടെ പിന്നെ ക്ലൈംബിംഗ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അടിപൊളിയായിരുന്നു